നമ്മുടെ പാലക്കാട് ജില്ല പ്രധാനമായിട്ടും ഒരു കാർഷിക ജില്ലയാണ് കൃഷി തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് നമുക്ക് ഇവിടെ നെൽപ്പാടങ്ങൾ ഏറ്റവും കൂടുതൽ പാലക്കാടൻ മട്ട എന്നുള്ള അറിയപ്പെടുന്ന ഒരു നെൽക്കൃഷി മെയിനായിട്ട് ഇവിടെ പാലക്കാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ല മെയിൻ ആ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു അരി അല്ലെങ്കിൽ നെല്ലിൻ്റെ മെയിനായിട്ടുള്ള ഒരു സോഴ്സ് പാലക്കാട് ജില്ലയാണ് പിന്നെ കൃഷി അതുപോലിപ്പോൾ വേറെ കൃഷി നോക്കുമ്പോൾ പച്ചക്കറി കൃഷിയുണ്ട് പിന്നെ നമ്മളെ കരിമ്പ് ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് കൃഷിയിൽ നമ്മൾ നോക്കിയാൽ വരണത് പിന്നെ നമുക്ക് കഞ്ചിക്കോട് എന്ന് പറയുമ്പോൾ ഫാക്ടറികൾ നോക്കുകയാണ് പറഞ്ഞാൽ കഞ്ചിക്കോട് ഭാഗത്ത് കുറേ അധികം ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയറ് ഫാക്ടറികളുണ്ട് പാലക്കാട് ജില്ലയിൽ തുണീൻ്റെ ഉണ്ട് ഇരുമ്പിൻ്റെ ഉരുക്കണ പരിപാടി കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് അങ്ങനെ നമുക്ക് ഏകദേശം അത്യാവിശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പച്ചകറികളും കാര്യങ്ങളും നമ്മൾ കൃഷി മെയിനായിട്ട് ചെയ്യണത് അല്ലെങ്കിൽ ചന്തകൾ പിന്നെ പാലക്കാട് മാർക്കറ്റ് നോക്കുകയാണ് പറഞ്ഞാൽ മെയിനായിട്ട് അവിടെ പച്ചക്കറി വിൽപ്പനയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഇടയ്ക്കൊരു പാക്കേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് അവർ പച്ചക്കറികൾ പണ്ടത്തെപ്പോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പിന്നതുപോലെ മറ്റേ അവർക്ക് പച്ചക്കറിക്കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളവും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡിസ്ക്കൌണ്ട് നിരക്കിൽ കൊടുക്കണ രീതി അങ്ങനത്തെ ഒന്ന് രണ്ട് പാക്കേജും കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്കു വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വ്യവസായം എന്ന് നോക്കുകയാണ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വരുന്നത്